ഇപ്പം ഒരുപാട് നമ്മളെ ക്ലൈമറ്റ് ഒരുപാട് ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പൂന്തോട്ടത്തിൽ കൃഷികൾ ആയിക്കോട്ടെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല നല്ല എന്താണ് പറയുക തേൻ പോലെയുള്ള അങ്ങനെ അങ്ങനെയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ അവർ ആകർഷിക്കാൻ വേണ്ടി നമുക്ക് നട്ടു വയ്ക്കാം അതുപോലെ തന്നെ പഴങ്ങളും കാര്യങ്ങളൊക്കെ വച്ചു നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പക്ഷികളും നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് എത്തി വരും അവരെ നമുക്ക് ആകർഷിക്കാൻ കഴിയും കാരണം നല്ല തേൻ കുടിക്കുന്ന കുരുവികളൊക്കെ ഉണ്ടാവും അവരെയൊക്കെ ആകർഷിക്കണമെങ്കിൽ അതുപോലെയുള്ള പൂക്കളും കാര്യ്ങ്ങളുമൊക്കെ നട്ടു പിടിപ്പിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുപോലെ തന്നെ അവർ കഴിക്കുന്ന പഴങ്ങൾ ചെറിയ ചെറിയ പഴങ്ങൾ ആയിക്കോട്ടെ അതുപോലെ അത്തിപ്പഴം അതുപോലെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് പോലത്തെ ഇതൊക്കെ കൃഷിയൊക്കെ നടത്തുകയാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് കടന്നു വരും അതുപോലെ തന്നെ ഇപ്പോൾ ചൂടും കാര്യങ്ങളും ക്ലൈമറ്റൊക്കെ കൂടുന്നതു കൊണ്ടു തന്നെ നമ്മൾ ഇപ്പം വലിയ നെല്ലോ അതുപോലെ തന്നെ തിനയോ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു ചെറിയ പാത്രത്തിലാക്കി വച്ചു കൊടുക്കുക അങ്ങനെ വീട്ടിൽ ഇവിടെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ വച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് കുറച്ചു ഇപ്പം എന്താണ് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഇരട്ട തലേച്ചിക്ക് ആണെങ്കിൽ ചോറും കാര്യങ്ങളൊക്കെ കഴിക്കും അപ്പം അങ്ങനെയുള്ള ധാന്യങ്ങൾ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവ ഓട്ടോമാറ്റിക്കിലി നമ്മളെ അടുത്തേക്ക് വരും നമുക്ക് എന്നു വച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തേടി പോവേണ്ട ആവശ്യമില്ല അവർ ഓട്ടൊമാറ്റിക്കെലി ഇങ്ങോട്ട് വരുന്ന സ്ഥിതിയിലേക്ക് വരെ ഉണ്ട്